കർഷക ആത്മഹത്യ നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കാനുള്ള ഏക കാരണം അവർക്ക് മതിയായ സംരക്ഷണം നമ്മുടെ സർക്കാർ നൽകാത്തതാണ് അവരുടെ കൃഷി രീതിയിൽ നമ്മുടെ സർക്കാർ ഒരു തരത്തിലും സഹായം ചെയ്യുന്നതുമില്ല ചെയ്താൽ തന്നെ ശരിയായ രീതിയിൽ കർഷകർക്ക് അത് എത്തുന്നതുമില്ല അവരുടെ ഒരു കൃഷി നഷ്ടം വന്നാൽ അത് അവർ സ്വന്തം ഏറ്റെടുക്കുകയോ അത് നികത്താതെ വരുമ്പോൾ അവരുടെ കിടപ്പാടം മൊത്തം പണയും വയ്ക്കേണ്ടി വരുന്ന അവസ്ഥ ആയതുകൊണ്ടാണ് അവർ ആത്മഹത്യ ചിന്തിക്കുന്നു എന്നത് ഇത് തടയാനായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കർഷകർക്ക് കൃത്യമായി വിദ്യാഭ്യാസം നൽകുക സമയാ സമയങ്ങളിൽ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പോയി അവർക്കു വേണ്ട ഉപദേശങ്ങളും ചെടികൾക്ക് ആവശ്യമായ മരുന്നുകളും വില ചെറിയ വിലയിൽ സബ്സിഡി ആയി നമുക്ക് നൽകാൻ കഴിയണം എന്നാൽ മാത്രമേ അവർക്ക് കൃഷിയിൽ മുന്നേറാനും അവർക്ക് ലാഭം കിട്ടുവാനും പറ്റുകയുള്ളു അവർ കച്ചവട സാധനങ്ങൾ മാർക്കറ്റിൽ കൊണ്ടു പോയി വിൽക്കുമ്പോൾ അവർക്ക് ചെറിയ ഒരു വില മാത്രമാണ് കിട്ടുന്നത് എന്നാൽ ഓരോ സാധനങ്ങൾക്കും അവർക്ക് ഒരു താങ്ങു വില നിശ്ചയിച്ചു എല്ലാ കാലങ്ങൾക്കും അവർക്ക് നഷ്ടം വരാത്ത രീതിയിലുള്ള ഒരു വില നമ്മൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ ഈ കർഷകർ ആത്മഹത്യയും കടവും ഒഴിവാക്കാനും ഒക്കെ നമുക്ക് സാധിക്കും